ഞാൻ ലോങ്ങ് യാത്ര പോകുമ്പോൾ ഊട്ടി കൊടക്കനാല് ചെന്നൈ അല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് ലോങ്ങ് യാത്ര പോകുന്ന സമയത്ത് ഞാൻ ഒരു റൂറൽ ഏരിയ ഇടുക്കി ഭാഗത്തിൽ നിന്ന് വ വരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചുരം അവിടുന്ന് മുകളിൽ നിന്ന് ഇത് ചെയ്തിട്ടാണ് വരേണ്ട അതായത് എസ് പിൻ വഴിയാണ് നമ്മൾക്ക് വരേണ്ടത് വാഹനം അപ്പം അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുമ്പം ഇരിക്കുന്ന ആൾക്കാർ എന്റയർ ഫാമിലി ഞാൻ ഉൾപ്പെടെയാണെങ്കിലും അവർ ഒരുപാട് റിസ്ക് എടുത്തിട്ട് വരുന്നത് കാരണം വോമിറ്റിങ്ങ് ട്രാവലിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ കാരണം ചുരം ഇറങ്ങി വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മുകളിൽ നിന്ന് തഴോട്ടാണ് നമ്മൾ വരുന്നത് വരുന്ന സമയത്ത് നമ്മളെ ചെവി അടയും കാറ്റിൻ്റെ എന്തെങ്കിലും ഒരിത് ഭയങ്കരമായിട്ടും ഇതാവും ഇവൻ ഇഫ് നമ്മൾ എ സി ഓൺ ചെയ്തിട്ട് ഇട്ടിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ പോലും ആ ഒരു മുകളിൽ നിന്നുള്ള ഒരു രീതിയിൽ താഴോട്ട് വരുമ്പോഴ്ത്തേക്ക് നമ്മുടെ നമ്മുടെ ചെവിയൊക്കെ അടഞ്ഞായിരിക്കുന്നു നമ്മൾ താഴെ ഏകദേശം എത്തുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൾമോസ്റ്റ് ഒരു അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇപ്പം ഈ ഫോർ വീല് ഉള്ള കാറ് അങ്ങനെയുള്ള സംഭവങ്ങൾ ടയേഴ്സിനുള്ള പ്രോബ്ലം പെട്ടെന്നാണ് നമുക്ക് പവറ് കൂടി വലിക്കുകയും ഇതവൊക്കെ ചെയ്യേണ്ട അപ്പം ടയേഴ്സ് ഇങ്ങനെ നേരെയുള്ള സ്ട്രേറ്റ് റോഡിൽ കൂടെയല്ല പോകുന്നത് എസ് പിൻ വഴിക്കൂടെ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ട് കാർ ഒക്കെ പുതിയതായിട്ട് മേടിച്ച് കഴിയുമ്പോൾ ഒരു ആറ് മാസം ഉപയോഗിച്ച് കഴിയുമ്പം പെട്ടെന്നാണ് അതിൻ്റെ ആ ഒരു മൈലേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാകണത് അതൊക്കേന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഏറിയ ഒരു കാര്യങ്ങളാണ് പിന്നെ ചില സമയത്തെന്ന് പറയുമ്പോൾ ഈ രാത്രി കാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് പ്രത്യേകിച്ച് മഞ്ഞ് ഉള്ള സമയത്ത് മഞ്ഞ് കാലം എന്ന് പറയുമ്പം ഇടുക്കി ആ ഭാഗത്തോടെന്ന് പറയുമ്പോൾ കൂടുതലും എപ്പോഴും മഞ്ഞ് മഞ്ഞ് തന്നെയാണ് രാവിലെയും രാത്രിയിലും അപ്പം ആ സമയത്ത് നമ്മൾ രാത്രിയിലൊക്കെ പോകുന്ന സമയത്ത് ഈ മഞ്ഞൊക്കെ ആയതുകൊണ്ട് നമ്മൾ മുന്നേ വരുന്നത് അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ലെങ്കിൽ മുന്നേ ഉള്ള താറ അല്ലെങ്കിൽ മുന്നേ ഉള്ള വാഹനത്തിൻ്റെ വെട്ടത്തിൻ്റെ ഇതിലായിരിക്കും നമ്മൾ പോകുന്നത് ചില ചിലതാണെങ്കിൽ നമ്മൾ ആണ് ആദ്യം വാഹനം കൊടുക്കണതെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ലൈറ്റിൻ്റെ ഒരു ഇത് വെച്ചായിരിക്കും പുറകിലത്തെ വാഹനങ്ങൾ വരുന്നത് അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ മഴ സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് നമ്മൾ നേരിടും കാരണം നമുക്ക് പെട്ടെന്നുള്ള ഒരു സ്പീഡ് നമുക്ക് നോർമലി മഴയില്ലാത്ത സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കുന്ന ഒരു സ്പീഡ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല കാരണം വളവും തിരുവും അങ്ങനുള്ള സംഭവങ്ങളുണ്ട് സോ അതുകൊണ്ട് ആ ഒരു സ്പീഡ് നമ്മൾ കുറച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് മഴക്കാലങ്ങളിലും മഴ സമയങ്ങളിലും നമുക്ക് പോകാൻ പറ്റുന്നത് പോകാൻ ഇത് ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴെ വരെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ഈ പാതകളിലൊക്കെ വരുന്ന സമയത്ത് അനുഭവപ്പെടുന്നതാണ് വെള്ളം വരുന്നത് മുകളിൽ നിന്ന് വെള്ളം താഴോട്ട് വരുന്ന ഒരു സംഭവമുണ്ട് അപ്പം ചില സമയത്ത് ഈ മഴകൾ മഴയുള്ള സമയത്ത് ഈ പാതകളൊക്കെ ചിലപ്പം നിറഞ്ഞ് കാരണം നമുക്ക് കാർ ഒക്കെ കൊണ്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് മുകളിൽ നിന്നല്ല അത് ഏറ്റവും നമ്മൾ താഴെ വന്ന് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഈ കുറേ മഴ പെയ്ത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മഴ പെയ്ത് മഴ വെള്ളം കെട്ടിക്കിടന്ന് അതിങ്ങനെ ഫ്ലോ ചെയ്ത് റോഡിലോട്ട് വരുന്നത് വാഹനം ഓടിക്കുന്ന ആ രീതിയിലോട്ട് വരുന്നത് അപ്പം യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രതിസന്ധികളും നേരിട്ടിട്ടുണ്ട്